ഞാൻ സെലക്ദ് ചെയ്ത പ്രോഡക്റ്റ് മൊബൈൽ ഫോണായിരുന്നു മൊബൈൽ ഫോണിൻ്റെ നെഗറ്റീവ് വശം പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പളും കൂടുതലായിട്ടിപ്പം എല്ലാരും യൂസ് ചെയ്യുന്ന സംഭവമാണ് മൊബൈൽ ഫോൺ എല്ലാവരുടെ കയ്യിലുമുണ്ട് കുട്ടികളടക്കം പ്രായമായവരുടെ കയ്യിൽ വരെ ഇപ്പം ഫോണാണ് അപ്പം നമ്മള് ഇന്നത്തെ കാലഘട്ടത്തില് നമുക്കൊഴിച്ച് കൂടാനാവാത്തതും ഇതാണ് പക്ഷേ എന്നാൽ ഇത് ഇത് ഇതിൻ്റെ മിതമായിട്ടുള്ള ഉപയോഗം നമുക്കെല്ലാവർക്കും പല പല തരത്തിലുള്ള ഒരുപാട് രോഗങ്ങളും അസു ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് തലവേദനയായിട്ടായാലും കുട്ടികൾക്ക് കണ്ണിന് പ്രശ്നമെപ്പഴും നോക്കിയിരുന്നാൽ അങ്ങനെ അങ്ങനെ പല പല അസുഖങ്ങളും മൊബൈൽ ഫോൺ കൊണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പം അതിൻ്റെ നമ്മള് ഒരുപാടായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മൊബൈൽ ഫോൺ നമുക്ക് മൊബൈൽ ഫോണാണെങ്കിലും ആ പെട്ടെന്ന് ഹീറ്റ് ആകുകയും കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഇപ്പം കുറെ സ്ഥലത്തിപ്പം ഫോൺ പൊട്ടിത്തെറിച്ചും അങ്ങനെ അങ്ങനെ ഒക്കെ ആയിട്ട് പല പ്രശ്നങ്ങളും ഇപ്പം നടക്കുന്നുണ്ട് അപ്പം അതുപോലെ അതുകൊണ്ട് മൊബൈൽ ഫോൺ നല്ലതാണ് പക്ഷേ അതിന്റെ എപ്പളുള്ള യൂസ് ഒട്ടും നല്ലതല്ല നമ്മൾ അത് എല്ലാവരും കുറയ്ക്കേണ്ടതാണ് പക്ഷേ എല്ലാവരും കൂടുതലായും ഫോൺ ഉപയോഗിച്ച് അതില്ലാണ്ട് പറ്റില്ല ആർക്കും അങ്ങനെയാണ് അപ്പം മൊബൈൽ ഫോണെപ്പഴും ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല